ആറ് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഏഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പത്തൊമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഒന്ന് ഒന്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത്